ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന പരം പരമ്പരയായിട്ട് വായിക്കുന്നത് നോവലുകൾ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ വായിച്ചിട്ട് വായിച്ചിട്ട് വായിക്കുന്നുണ്ട് പിന്നെ മംഗളം മലയാള മനോരമ പിന്നെ വനിത അങ്ങനെ ഉള്ള ആഴ്ചപ്പതിപ്പുകൾ പരമ്പര ആയിട്ട് വായിക്കുന്നതായിരുന്നു ഇപ്പോള് പിന്നെ നമ്മടെ പള്ളികളിലൊക്കെ വരുത്തുന്ന പിന്നെ കുടുംബ ജ്യോതിസ് വചനോത്സവം പിന്നെ അങ്ങനെയുള്ള പുസ്തകങ്ങള് പിന്നെ വായിക്കും ആഴ്ച തോറും കിട്ടുന്ന ആഴ്ചപ്പതിപ്പുകളായിട്ട് ഉള്ളതുണ്ട് കൃപാസനം മാസിക പള്ളികളിലെ വഴിയായിട്ടുള്ള കൃപാസനം മാസിക പിന്നെ വാണ് ഓരോ മാസങ്ങളിലും വായിട്ട് വായിക്കുന്ന വണക്ക മാസങ്ങള് ഓരോ വിശുദ്ധന്മാരെ കുറിച്ചുള്ള പിന്നെ പരം പാരമ്പര്യമായിട്ട് വിശുദ്ധന്മാരെക്കുറിച്ച് ഉള്ള ചരിത്രങ്ങള് വായിക്കുന്ന അങ്ങനങ്ങനെ വായിക്കും അത് പിന്നെ അത് അതൊക്കെ നമ്മുടെ ജീവിതത്തില് പിന്നെ ഓരോ വിശുദ്ധന്മാരെക്കുറിച്ചും അവരുടെ കാര്യങ്ങള് എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുന്നത് നമുക്ക് ജീവിതത്തില് ഒത്തിരി സ്വാധീനം ചെലുത്തുന്നതാണ് പ്രാര്ത്ഥന രീതിയിലും ജിവിത യാത്രയിലും ഒക്കെ നമുക്ക് ഒത്തിരി ഉപകാരപ്രദമാണ് ജീവിത വിശുദ്ധന്മാര് ഓരോ ഓരോരുത്തരും ഓരോ ഓരോ ഓരോ വിശ്വാസികള് ഓരോ വിശ്വാസത്തില് ഓരോ വിശുദ്ധന്മാരുടെയും നാമദേയ ദേയത്തിലുള്ള പള്ളികളില് ആരാധനാലയങ്ങളിലൊക്കെ പോവുന്നതും അവരെക്കുറിച്ചുള്ള പിന്നെ ചരിത്രങ്ങള് അവരുടെ ചരിത്രങ്ങളും അവരുടെ ജീവിതരീതികളും അവരുടെ അത് അതില് പിന്നെ ആ എല്ലാ കാര്യങ്ങളും വായിച്ച് അവ വളരുവാന് ജീവിതത്തില് ഒത്തിരി നല്ലതാണ് പിന്നെ

വചനോത്സവം കുടുംബ ജ്യോതിസ് അല്ല വരും പിന്നെ മാസികകള് അതെല്ലാ മാസങ്ങളിലും കറക്റ്റായിട്ട് കിട്ടുന്നതും വായിക്കുന്നതുമാണ് അതിന്റകത്ത് കിട്ടുന്ന അറിവുകളും പുണ്യാളന്മാരുടെയും വിശുദ്ധരുടെയും ഒക്കെ ജീവചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം ജീവിതത്തെ ഒത്തിരിയധികം എന്നാ സ്വാധീനിക്കുന്നുണ്ട് പിന്നെ ഓരോ പാരമ്പര്യ പരമ്പരാഗതമായിട്ട് വായിക്കാവുന്ന ഒരു ഗ്രന്ഥങ്ങളാണ് വിശുദ്ധ ബൈബിള് ബൈബിളില് ഉള്ള കാര്യങ്ങളില് ആണേലും എല്ലാ സ്ലീഹന്മാരുടെ കാര്യങ്ങളും അവര് ഓരോ സുവിശേഷകര് എഴുതിയിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇവ വീണ്ടും വീണ്ടും വായിക്കുന്നതാണ് പിന്നെ ഇനി നൊവേനകള് ഓരോ പുണ്യാള അച്ഛന്മാരുടെയും പിന്നെ പുണ്യാളച്ഛന്മാരുടെ ജീവിതരീതികള് കുറിച്ചുള്ള പിന്നെ പ്രാര്ത്ഥനകള് അവര് നടത്തിയ സുഹൃദ് വചനങ്ങള് സുവിശേഷ ഭാഗ്യം സുവിശേഷത്തില് ഉൾപ്പെടുത്തിയിരിക്കുന്നു കാര്യങ്ങള് അതെല്ലാം ജീവിതത്തില് ഏറെ പ്രയോജനം ആയതുകൊണ്ട് അത് ഒക്കെ വായിക്കുന്നത് ഒക്കെ വളരെ ഇഷ്ടമാണ് പിന്നെ മെയ് മാസത്തില് പിന്നെ മാതാവിന്റെ നൊവേന വണക്ക മാസം ഒന്ന് തൊട്ട് ഇത് ജൂണ് മാസത്തിൽ തിരുഹൃദയത്തിന്റെത് അങ്ങനെ ഓരോ മാസങ്ങളില് ഓരോ ഭക്തര് ഓരോ വിശുദ്ധരുടെ പുണ്യാളന്മാരുടെ ഒക്കെ ഒരു കാലമായിട്ട് എടുത്ത് കൊണ്ട് ആ സമയങ്ങളില് പ്രത്യേകമായിട്ട് അവരോടുള്ള വണക്കവും സ്തുതിയും എല്ലാം പിന്നെ പ്രാര്ത്ഥന ചൊല്ലുകയും അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന് പുണ്യാളന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുന്നത് ആണ് എപ്പോഴും നല്ലത് പിന്നെ പിന്നെ ഈ പൈങ്കിളി കഥകളും മറ്റുള്ള മാസികകളും ഒക്കെ ജീവിതത്തില് അത് അപ്പോഴത്തെ ഉള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം അത് കരുതാമെന്നുള്ളതെ ഉള്ളു പിന്നെ നമ്മുടെ ആത്മീയമായിട്ടുള്ള വളര്ച്ചയും കാര്യങ്ങളിലും ഒക്കെ നമ്മുടെ നമ്മുടെ പുണ്യാളന്മാരുടെയും ഒക്കെ ഉള്ള പുസ്തകങ്ങളും പിന്നെ മാസികകളും ഒക്കെയാണ് അത് നമുക്ക് എപ്പോഴും ജീവിതത്തില് ഉപകാരപ്രദവായിട്ട് ഇരിക്കുന്നത് പിന്നെ എന്നും ജീവിതത്തില് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുന്നു ആണ് ഏറ്റവും നല്ലത്